ഞങ്ങളുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മലയാളഭാഷ വളരെ വളരെ വലിയ പങ്കുവഹിക്കുന്നുണ്ട് അപ്പം മലയാള ഭാഷയാണ് ഞങ്ങളുടെ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്ത് കമ്മ്യൂണിക്കേറ്റയാനുള്ള ഏറ്റവും വലിയ മാധ്യമം ഈ അത് മലയാള ഭാഷയില്ലെങ്കിൽ പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല മലയാളഭാഷയിലൂടെ നമുക്ക് പല രീതിയിൽ മറ്റുള്ളവരോട് മുതിർന്നവരോട് യൂത്തിനോട് അതുപോലെ കുഞ്ഞുങ്ങളോട് എല്ലാവരോടും തന്നെ ഈസിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഭാഷയാണ് മലയാളഭാഷ അറിയാത്തവർക്ക് അവരുടെ സംസ്കാരം ചോർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് മലയാള ഭാഷയെ കൂടുതലായിട്ട് മുൻനിർത്തി വേണം നമ്മുടെ പാഠ്യ പാഠ്യേതര പദ്ധതിയെല്ലാം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല രീതിയിൽ പഠിച്ചുവരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈസിയായിട്ട് വായിക്കാനും വായിക്കുവാനും പ്രസംഗിക്കുവാനും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുവാനായിട്ട് ഒക്കെ ഈസിയായിട്ട് സാധിക്കുന്നു ഈ പാഠ്യ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മലയാള ഭാഷ നമ്മുടെ ഈ സംസ്ഥാനത്ത് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അത് നമ്മുടെ സംസ്കാരത്തെ തന്നെ ചൂഴ്ന്ന് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ മലയാള ഭാഷ മലയാള ഭാഷയിലൂടെ ആണ് ഈ കലാസാംസ്കാരിക സമ്പത്ത് വളരെയേറെ സംഭാവനകൾ നൽകിയിരിക്കുന്നത് ഇതിൻ്റെ അടിത്തറ നമ്മുടെ ഈ മലയാള കേരളത്തിൻ്റെ അടിത്തറയായിട്ട് നിലകൊള്ളുന്നതുപോലും മലയാള ഭാഷയാണ് ഈ ഭാഷയിലൂടെയാണ് മറ്റുള്ളവരെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു നാഴികക്കല്ല് എന്നു പറയാനായിട്ട് സാധിക്കും മലയാള ഭാഷ നമുക്കെപ്പോഴും നമ്മുടേതായ തനിമ നിലനിർത്തുന്ന ഒരു ഘടകമാണ് പരമ്പരാഗതമായിട്ട് നോക്കിയാണെങ്കിൽ ഈ മലയാളഭാഷ ഒത്തിരിയേറെ സംഭാവനകൾ നൽകിയിരിക്കുന്നതാണ് കലാസാംസ്കാരിക രംഗത്ത് നമുക്ക് ഒത്തിരിയേറെ നന്മകളെ പ്രധാനം ചെയ്തിരിക്കുന്ന ഒരു ഘടകമാണ് മലയാളഭാഷ അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ മലയാളഭാഷ വലിയൊരു പങ്കുവഹിക്കുന്നുമുണ്ട് ഉണ്ട് എന്നെനിക്ക് നിസംശയം പറയാൻ പറ്റും